ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് യു പി എ സി മുതലായ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വാർത്താ മാധ്യമങ്ങൾ എങ്ങനെയാണ് സഹായകമാകുന്നത് എന്നാണ് അതായത് നമ്മൾ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് തൊഴിലില്ലായ്മ അപ്പം തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളും നമ്മുടെ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനുമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ അടുത്ത തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് ഒരു ജോലിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് നമ്മൾ പിന്നെ നടത്തേണ്ടി വരുന്നത് അപ്പം ജോലിക്ക് വേണ്ടി തയ്യാറെടുക്കണമെങ്കിൽ നമ്മൾ അത് നമ്മൾ അതുവരെ എങ്ങനെ നമ്മൾ മറ്റു കോഴ്സുകൾ പഠിച്ചുവോ അതുപോലെ തന്നെ നമ്മൾ മത്സര പരീക്ഷകൾക്കും അത് അത്രയും കഠിനമായിട്ട് അധ്വാനിച്ചു പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഒരു മത്സര പരീക്ഷയ്ക്ക് വിജയം കണ്ടെത്താനും അതിനകത്ത് റാങ്കിൽ കയറി പറ്റാനും കഴിയുകയുള്ളു അങ്ങനെ റാങ്കിൽ കയറി പറ്റിയാൽ മാത്രമേ നമ്മൾക്ക് ഒരു ജോലി ഉറപ്പാക്കാനും പറ്റു അതുകൊണ്ട് നമ്മൾ നമ്മൾ കുട്ടികളെ തയ്യാറെടുപ്പിക്കേണ്ടത് യു പി എ സി മുതലായ മത്സര പരീക്ഷകൾക്ക് എങ്ങനെയൊക്കെ നമുക്ക് തയ്യാറെടുക്കാം എന്നുള്ളതാണ് അതിന് നമ്മൾ നമുക്ക് ഒരുപാട് മാധ്യമങ്ങൾ ഒരുപാട് മാധ്യമങ്ങളിൽ കൂടി നമുക്ക് അതിനുള്ള തയ്യാറെടുപ്പിനുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നു ഈ മാധ്യമം ഈ മാധ്യമ പ്രവർത്തനങ്ങളെ മാധ്യമങ്ങൾ നൽകുന്ന അറിവുകളെപ്പോഴും മാധ്യമങ്ങൾ നൽകുന്ന എപ്പോഴും അറിവുകൾ നമുക്ക് ഗുണകരമായ രീതിയിലാണ് നല്കി കൊണ്ടിരിക്കുന്നത് അത്കൊണ്ട് തന്നെ അതിന് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്ന ഈ അറിവുകളിൽ നിന്നും ഏതൊക്കെ തലത്തിൽ ഏതെല്ലാം തലത്തിൽ എവിടെയൊക്കെ വേക്കൻസികൾ ഉണ്ട് എങ്ങനെയെക്കെയാണ് നമ്മൾക്ക് അത് പ്രയോജനപ്പെടുത്താവുന്നത് എന്നതൊക്കെ അതുകൊണ്ട് നമ്മുടെ മത്സരപ്പരീക്ഷകൾക്ക് നമ്മൾ ചേരുമ്പോൾ മാധ്യമങ്ങളിൽ നിന്ന് ഏതൊക്കെ തരത്തിലുള്ള വേക്കാൻസികളാണ് നമുക്കുണ്ടാകുന്നത് ആ വേക്കൻസികളിൽ നമ്മൾ ഏതൊക്കെ ഏതൊക്കെ സമയത്താണ് എക്സാം നടക്കുന്നത് ആ സമയത്ത് എക്സാം നടക്കണമെങ്കിൽ നമ്മളുടെ നമ്മളുടെ എയിജ് നമ്മളുടെ മറ്റ് കമ്മ്യൂണിറ്റി നമുക്ക് നമ്മുടെ കോളിഫിക്കേഷൻ ഇതെല്ലാം മാധ്യമങ്ങളിൽ കൂടിയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അങ്ങനെ കിട്ടുന്ന അറിവുകളിൽ നിന്ന് നമുക്ക് ഒരു കുട്ടിയെ ഏത് തലത്തിൽ ഏത് മത്സര പരീക്ഷയിലാണ് അറ്റെൻഡ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ മനസ്സിലാക്കുന്നതിൽ കൂടിയാണ് നമ്മൾ ആ കുട്ടിയെ പരീക്ഷയ്ക്ക് വേണ്ട തയ്യാറെടുപ്പുകളിലേക്ക് ഒരുക്കിയെടുക്കുന്നത് ഇതിൻ്റെ മാധ്യമപ്രവർത്തകർ മാധ്യമങ്ങളാണ് നമുക്ക് ഏറ്റവും നല്ല ഒരു വിവരം നൽകുന്നത് മാധ്യമങ്ങൾ ഏത് ഏതൊക്കെ എല്ലാ മേഖലകളിലും എല്ലാ മാധ്യമങ്ങളും തൊഴിൽ അവസരങ്ങൾ പ്രസിദ്ധികരിക്കുകയും നമുക്ക് കിട്ടുന്ന ആ ആ അറിവ് വച്ചു നമുക്ക് ഈ നമ്മടെ കുട്ടികളെ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളെ പരീക്ഷയ്ക്ക് ഈ അറ്റെൻഡ് ചെയ്യിപ്പിക്കാനായിട്ട് രയിസ്റ്ററ് ചെയ്യുകയും ചെയ്യാം ഇത് നമുക്ക് ഈ മാധ്യമപ്രവർത്തകർ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ അത് വാർത്താ മാധ്യമങ്ങൾ തന്നെ നമുക്ക് ഇപ്പോൾ ന്യൂസ് പേപ്പർ അല്ലാതെ തന്നെ നമ്മുടെ വിശ്വൽ മീഡിയാസ് അതേപോലെ നമ്മുടെ യൂട്യൂബിൽ കൂടി നെറ്റ്വർക്ക് ശൃംഖലകളിൽ കൂടി വരുന്ന മറ്റ് വേക്കൻസികളുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ ഏത് മേഖലകളിൽ നിന്നായാലും വാർത്താ മാധ്യമങ്ങളിൽ നിന്നാണ് നമുക്ക് നമ്മളുടെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ തലമുറയ്ക്ക് മാധ്യമങ്ങൾ വാർത്ത മാധ്യമങ്ങൾ വളരെ ഏറെ പ്രധാനപ്പെട്ട ഒരു വളരെ ഏറെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മളുടെ പഴയ കാലങ്ങളിൽ നമുക്ക് ഒരു ഒരു അവസരം ലഭിക്കണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടവരുടെ ബന്ധപ്പെട്ടവർ മുഖേനയോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചു ആ ഫീല് ആ അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് പരിചയമുണ്ടെങ്കിൽ മാത്രമേ ഇതിനെ നമുക്ക് മാത്രമേ നമുക്ക് അത് അറിയാൻ കഴിഞ്ഞിരുന്നുള്ളു പക്ഷെ അതുകൊണ്ട് തന്നെ പല കുട്ടികൾക്കും പല ഉദ്യോഗാർത്ഥികൾക്കും അവസരങ്ങൾ നഷ്ടപ്പെടുകയും അവർക്ക് അവർ ഇഷ്ടപ്പെടുന്ന ജോലി ചെയ്യാൻ സാധിക്കാതെ അവർ തിരഞ്ഞെടുക്കുന്ന ജോലികളിൽ സംതൃപ്തരാവുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു മാധ്യമങ്ങൾടെ സ്വാധീനം നമുക്ക് നമ്മൾടെ കുട്ടികൾക്കായാലും നമ്മളുടെ പരിചയക്കാർക്ക് ആയാലും വളരെയേറെ പ്രയോജനം ചെയ്യുന്നതാണ് ആ നമ്മുക്ക് കിട്ടുന്ന അറിവുകൾ മറ്റുള്ളവരിലേക്ക് പറഞ്ഞ് കൊടുക്കാനും അവർ പക്ഷെ അറിയാത്തവരിൽ അറിയാത്തവരിലേക്ക് നമുക്ക് ഈ അവസരങ്ങളെത്തിച്ചു കൊടുക്കുവാനും നമ്മൾടെ ഓരോരുത്തർക്കും കഴിയുന്നുയെന്നതാണ് ഈ വാർത്ത മാധ്യമങ്ങൾ സഹായമാകുന്നത്